നമുക്ക് എനിക്ക് ലോകത്തെവിടെ വേണമെങ്കിലും പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് പോകാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗൾഫിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ഗൾഫിൽ പോകാത്തവർ ഒക്കെ വളരെ കുറവാണ് കാരണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസയ്ക്കെങ്കിലും പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ജോലിക്കാണെങ്കിലും അപ്പോൾ ജോലിയായിട്ട് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകണം എന്ന് ആഗ്രഹ അതായത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അഥവാ ഇപ്പോൾ ജോലിക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുദ്ദേശിക്കുന്ന ശമ്പളം കാര്യങ്ങളൊന്നും കിട്ടി ഇപ്പോൾ നമുക്ക് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ആ ഒരുറേഞ്ച് റേഞ്ചിലൊക്കെയാണ് നമുക്ക് ശമ്പളം കൂടുതലായിട്ട് പറയുന്നത് അപ്പം നമ്മൾ അതിനൊന്നും നമ്മൾ ഗൾഫിലൊന്നും പോയി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെയൊരു അഭിപ്രായം പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ് പിന്നെ ജോലി ഇപ്പോ ജോലിയൊന്നും അവിടെ കിട്ടിയില്ലെങ്കിലും ഗൾഫ് കാണാനായിട്ടൊരു പിന്നെ വിസിറ്റിംഗ് വിസക്കെങ്കിലും ഒന്ന് പോയി കാണണമെന്നെനിക്ക് ഭയങ്കര ആഗ്രഹാണ് പിന്നെ അതെന്തായാലും നടത്തണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പോൾ പിന്നെ ക്യാഷിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ പോകുന്നത് നമുക്കവിടെ പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്യാഷ് കയ്യിൽ വേണമല്ലോ അപ്പോൾ ക്യാഷ് എന്തായാലും അത്യാവശ്യം നല്ല ക്യാഷ് കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗൾഫ് സന്ദർശിക്കാനായിട്ട് ഞാൻ പോകും